തീർച്ചയായിട്ടും രാസപദാർത്ഥങ്ങളുള്ള കീടനാശിനികൾ മണ്ണിൻ്റെ ഉപയോഗത്തെ ബാധിക്കുന്നുണ്ട് അതിന് അതുകൊണ്ടു മാത്രം നമുക്ക് മണ്ണിന് നഷ്ടമായിട്ടുള്ള ഒത്തിരി പ്രകൃതിദത്തമായ ജീവജാലങ്ങൾ ഉണ്ട് പിന്നെ നമ്മുടെ വെള്ളത്തേയും മണ്ണിനെ ഒരുപോലെ മലിനമാക്കുന്നുണ്ട് അത് നമ്മുടെ മണ്ണിൽ നമ്മൾ സാധാരണയായിട്ട് ഈ കളനാശിനിയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് നട്ടാലും ഉണ്ടാവാത്ത അല്ലെങ്കിൽ അത്രയും ഈ നാച്ചുറലായിട്ട് ഇപ്പം കൂൺ പോലെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഉണ്ടായി വരാത്ത പ്രതിഭാസങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അത് ഈ രാസപദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ കീടനാശിനികളുടെ ഉപയോഗം കൊണ്ട് സ്വാഭാവികമായി മണ്ണിലുള്ള സാധനങ്ങൾ നശിച്ചു പോവുകയും മണ്ണിലെ ബാക്ടീരിയകളൊക്കെ നശിച്ചുപോവുകയും അത്തരം ഇപ്പം ഈ ആൽഗൈകൾ ഫംഗൽ പ്ലാൻസ് അങ്ങനെ അല്ലെങ്കിൽ കൂൺ ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ വളരാനായിട്ട് അതിനെ അതിന് അനുകൂലമായ സാഹചര്യമില്ലാതെ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിനകത്ത് നല്ല മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ ഉണ്ടാവുന്ന ജീവിതശൈലി രോഗങ്ങളുടെ വലിയ ഒരു കാരണമെന്ന് പറയുന്നതു തന്നെ ഇത്തരം രാസപദാർത്ഥങ്ങളുടേയും കീടനാശിനികളുടേയും ഉപയോഗമാണ് പ്രത്യേകിച്ചു റബ്ബർ തോട്ടങ്ങളിൽ മരുന്ന് അടിക്കുക കുരുമുളക് ഇങ്ങനെയുള്ള മരുന്ന് ഇതിനൊക്കെ കൂടുതലായിട്ട് ഇടുക്കി പോലെയുള്ള ജില്ലകളിലൊക്കെ ഏലം കൃഷിക്കൊക്കെ വേണ്ടി ചെയ്യുന്ന മരുന്നുകൾ വളരെ കട്ടികൂടിയ മരുന്നുകൾ ഏലച്ചെടീനെ ഫോക്കസെയ്ത് ചെയ്യുന്ന സ്വാഭാവികായിട്ട് ഏലച്ചെടിയുടെ ജലം എന്ന് പറയുന്നത് അതിൻ്റെ ചോട്ടിലാണ് ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ മരുന്നടിക്കുമ്പോൾ അത് കൂടുതൽ മണ്ണിലേക്ക് അബ്സോർബ് ആകും അതുകൊണ്ടു തന്നെ ഈസി ആയിട്ട് ഇവിടത്തെ മണ്ണും വെള്ളവും ഏറ്റവും പെട്ടെന്ന് മലിനമാകും പക്ഷെ അത് അങ്ങനെ മലിനമാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല മനസിലാക്കുന്നില്ല കാരണം വളരെ ഗ്രാജ്വൽ ആയിട്ടാണ് അതിൻ്റെ പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ദോഷവശങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ നാട്ടിൽ ഇത്ര അധികം ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാവാനുള്ള കാരണം തീർച്ചയായിട്ടും ഈ കീടനാശിനി പ്രയോഗവും അതുപോലെ തന്നെ നമ്മുടെ വെള്ളവും മണ്ണും മലിനാവുന്നതായിരിക്കും സ്വാഭാവികവായിട്ടും ആ മണ്ണിലേക്ക് നമ്മൾ വേറെ ഒരു സാധനം കുഴിച്ചു വച്ചു കഴിയുമ്പോൾ ആ സാധനം അബ്സോർബ് ചെയ്യുന്നതിന് അകത്ത് അതിന് വേണ്ട വളം പോലെ തന്നെ ഈ കീടനാശിനികളും രാസപദാർത്ഥങ്ങൾ ഉണ്ട് സ്വാഭാവികായിട്ടും നമ്മൾ അത് കഴിക്കുമ്പോൾ അത് ഉള്ളിൽ ചെല്ലും നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്ത് ഇഷ്ടം മാതിരി ഇത്തരം കെമിക്കൽസ് ഉണ്ട് അത് നമ്മുടെ ഉള്ളിൽ ചെല്ലും നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പം ഈ നാട്ടിൽ അതുകൊണ്ട് തന്നെ ക്യാൻസർ പേഷ്യൻസിൻ്റെ എണ്ണം ഷുഗർ പേഷ്യൻസിൻ്റെ എണ്ണം ഒക്കെ വളരെ കൂടുതലാണ് എപ്പോഴൊക്കെ എവിടെ എല്ലാം തോട്ടം മേഖലകളും നാണ്യവിളകളും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നോ അത്തരം സ്ഥലങ്ങളിൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു എന്നതു തന്നെ അതിൻ്റെ തെളിവാണ് ഒരുപക്ഷെ നമ്മൾ നഗരപ്രദേശത്തേക്ക് ചെല്ലുവാണ് അവിടെ ഈ വായു മലിനീകരണമാണ് കൂടുതൽ എങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുമ്പം ഇപ്പം കൃഷി രാസപദാർത്ഥങ്ങളെയും അത്തരം രാസവളങ്ങളെയൊക്കെ ഫോക്കസ് ചെയ്തത് ആയതുകൊണ്ട് ഇവിടെ മണ്ണും വെള്ളവും വെള്ളമാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്രോതസ്സുളാണ് കൂടുതലായിട്ട് മലിനമാക്കപ്പെടുന്നത് അതിന് എതിരെ ആളുകൾക്ക് വ്യാപകമായ ഒരു അവേർനെസ്സ് കൊടുക്കുക എന്നത് ആണ് നമുക്ക് ചെയ്യാനുള്ളത് പ്രത്യേകിച്ചു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഊർജിതമായ വളരെ കൃത്യമായ നടപടികൾ ഉണ്ടാവണം പക്ഷെ അത് പേരിനു മാത്രമായി പോവുകയും പലപ്പോഴും നടക്കാതെ വരികയും ചെയ്യുന്നുണ്ട് കാരണം ഈ കീടനാശിനി പ്രയോഗത്തിനൊക്കെ പിന്നിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ലോബികൾ ഉണ്ടാവാം അത് അത്ര എളുപ്പമായിരിക്കില്ല ഇമ്പ്ലിമെൻ്റ് ചെയ്യാമെന്ന് പറയുന്നത്

അതിൻ്റെ കാരണം ഒന്ന് ജൈവകൃഷിക്ക് രാസപദാർത്ഥം ഉപയോഗിക്കുന്നതിൻ്റെ അത്ര വിളവോ ലാഭകരമോ ആവുകയില്ല രണ്ട് ആളുകൾക്ക് അത്രയും വെയ്റ്റ് ചെയ്യാനുള്ള മനസ്സില്ല മൂന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിന് വലിയ പ്രോത്സാഹനങ്ങളൊന്നുമില്ല പക്ഷേ ആളുകൾ വ്യാപകം അതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ പറ്റി മനസ്സിലാക്കുന്നില്ല പണമുള്ളത് കൊണ്ട് ആരോഗ്യകരമായ ജീവിതമുണ്ടാവില്ല എന്നോ അല്ലെങ്കിൽ പണമുള്ളപ്പോൾ നമുക്ക് ജീവിതം വേണം ജീവൻ വേണം എന്നുള്ള അടിസ്ഥാനം അവർ പലരും മനസ്സിലാകാത്തതു കൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് വരുന്ന ഒരു തലമുറയിൽ എങ്കിലും അവന് വേണ്ടി അവേറാവുകയും മനുഷ്യരുടെ ബോധപൂർവമായ ഇടപെടൽ കൊണ്ട് ഇതിൽ നിന്ന് മനുഷ്യരെ പിന്തിരിപ്പിച്ചു ജൈവമാർഗ്ഗങ്ങൾ അവലംബിക്കാനുള്ള ഇടവരുത്തുകയും വേണം